ഞാന് വായിച്ചിട്ടുള്ളതില് അമിതമായി പൊലിപ്പിച്ച പുസ്തകം ഉണ്ടോ എന്ന് ചോദിച്ചാല് അമിതമായി പൊലിപ്പിച്ച പുസ്തകമെന്ന് പറയാന് പറ്റില്ല പക്ഷേ എന്നോടിങ്ങനെ കുറേ പേർ വായിക്ക ഇത് വായിക്കണമെന്ന് പറഞ്ഞ് റെക്കമെൻഡ് ചെയ്തിട്ട് ഞാന് ലൈബ്രറിയിൽ നിന്നെടുത്ത് വായിച്ചൊരു പുസ്തകമാണ് നമ്മുടെ കോവിലിന്റെ തട്ടകം എന്ന് പറയുന്ന നോവൽ അതായത് അതിനകത്ത് എന്താണ് സംഭവമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കഥയിൽ പ്രതിപാദിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്രാമത്തിലുള്ള ഒരു കൂട്ടം ആള്ക്കാരുടെ കഥ പറയുന്ന ഒരു നോവൽ ആണത് അതായത് ഒരു പ്രത്യേക ഒരു ദേവതയുടെ ദേവതയില് വിശ്വാസമര്പ്പിച്ച് ജീവിക്കുന്ന അതായത് ആ ഗ്രാമത്തിന്റെയെല്ലാം കാക്കുന്ന ദൈവമാണ് ആ ഭഗവതി എന്നൊരു അര്ത്ഥത്തില് അതിനെ ചുറ്റി പറ്റിയാണ് കഥ മുന്നോട്ട് പോയിക്കോണ്ടിരിക്കുന്നത് പക്ഷേ ഞാനത് ഇത് എന്തുകൊണ്ടൊണെന്ന് എനിക്കറിഞ്ഞുകൂടാ എനിക്ക് ഇതുവരെ ആ കഥ മുഴുവനായിട്ടും ഞാനതിന്റെ ആ നോവൽ ഇതുവരെ കമ്പ്ലീറ്റ് ആയിട്ട് എനിക്ക് വായിച്ച് തീര്ക്കാന് പറ്റിയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്ക് അത് ഇതുവരെ അതിന്റേതായ രീതിയില് എനിക്കാ കഥ വ്യക്തമായി ആ നോവൽ ഇനിയും എനിക്ക് മനസ്സിലായിട്ടില്ല അത് എന്റെ കുഴപ്പമാണോ അല്ലെങ്കിൽ അത് കഥാകൃത്തിന്റെ കുഴപ്പമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഞാൻ ഇതുവരെ അത് പൂര്ണ്ണമായും അതിന്റെ രീതിയിൽ ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ എനിക്ക് പറ്റിയിട്ടില്ല ആ നോവൽ വായ് ഞാൻ അതുകൊണ്ടുതന്നെ ആ നോവൽ ഇതുവരെ വായിച്ചു പൂര്ത്തിയാക്കിയിട്ടുമില്ല